ആ ഓക്കേ പറഞ്ഞോളൂ

ആ ഓക്കേ ആ പുട്ടും കടലക്കറിയും ഉണ്ട് അതുപോലെ ഇടിയപ്പവും മുട്ടക്കറിയും അതുപോലെ വെള്ളയപ്പവും മുട്ടക്കറിയും ഉണ്ട് പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും ചമ്മന്തി സാമ്പാർ അങ്ങനെയൊക്കെ പിന്നെ നെയ്റോസ്റ്റും മസാല ദോശയും ആണ് വരുന്നത് പിന്നെയിപ്പോൾ പൊറോട്ട വേണമെങ്കിൽ പൊറോട്ട ആക്കി തരും കേട്ടോ പിന്നെ അപ്പം ഉണ്ട് ആ ഓക്കേ ആ റസ്റ്റ് റൂം ആ ഉണ്ട് ഉണ്ട് ഹോംസ്റ്റേ ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ആ റൂമിലേക്ക് എത്തിച്ചു തരും ആ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ആ മതി ഒരു മോർണിംഗ് മോർണിങ്ങത്തേക്ക് ആണെങ്കിൽ തലേദിവസം പറയണം ആ മറ്റേത് കുഴപ്പമില്ല ലഞ്ച് ഒന്നും കുഴപ്പമില്ല മോർണിംഗ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ പറയുന്നതിന് അനുസരിച്ചാണ് തലേദിവസം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആക്കാൻ പറ്റുള്ളൂ

ആ ഓക്കേ ഉള്ളും നോൺവെജും നോൺവെജ് വേണമെങ്കിൽ നോൺവെജ് ഉണ്ട് അല്ലാണ്ട് വെജ് ആണെങ്കിൽ വെജും കുഴപ്പം ഇല്ല ഉള്ളിപ്പം എന്താ പറയാ ഇരുപത്തിരണ്ട് കൂട്ടാണ് ഉള്ളത് നോർമല് വരുമ്പോൾ നൂറ്ററുപത് രൂപേൻ്റെ വരും

ആ ഉണ്ട് ഉണ്ട് ആ ഓക്കേ ആ ഓക്കേ ഞാൻ മെനു കാർഡ് ആ ഓക്കേ ഓക്കേ ആ ആ അപ്പോൾ അറേബ്യൻ ഫുഡ് അങ്ങനെയെന്തെങ്കിലും വേണോ ആ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ